സാറേ ഞാൻ ജോയി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുകയാണ് ഞാൻ സാറിൻ്റെ ഹോട്ടലിൽ ഒരു കുറച്ച് ഫീ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു എൻ്റെ പേയ്മെൻറ് ഞാൻ ഗൂഗിൾ പേ വഴി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് അതിന് പേയ്മെൻറ് നടത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു എൻ്റെ അടുത്ത വളരെ അടുത്ത ഒരു ബന്ധു എറണാകുളത്ത് മരിച്ചിരിക്കുന്നു എനിക്കത് ഞാനും എൻ്റെ കുടുംബവും കൂടെ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയാണ് കാരണം ആ ഫുഡിൻ്റെ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് വേറെ മറ്റ് കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല ഇങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ടത് കൊണ്ടാണ് എനിക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് എനിക്ക് അതിന് ആ ഞാൻ അടച്ച ആ പണം അത് ഒന്നു റീഫണ്ട് ചെയ്തുതരാമോ എൻ്റെ ഞാൻ അത് ഓർഡർ ചെയ്തിരിക്കുന്നത് ടു ത്രീ ഡബിൾ സെവൻ ആണ് നമ്പർ തന്നിരിക്കുന്നത് പേയ്മെൻറ് ഗൂഗിൾ പേ വഴിയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഗൂഗിൾ പേ ഇത് ചെയ്തിരിക്കുന്നത് അതിനകത്തോട്ട് അതൊന്ന് ചെയ്തുതന്നാൽ മതിയാവും താങ്ക് യു